ഇപ്പം നിങ്ങൾക്ക് ഒരാഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും ഇപ്പം നെയ്ത്താണെങ്കിലും അത് നമ്മള് ചെറിയൊരു പണി തൊഴില് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മള് പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചു സമയം ഒക്കെ നമുക്ക് ഫ്രീയായിട്ട് കിട്ടും ആ സമയത്ത് നമ്മള് നെയ്യുക അതുപോലെ കുട്ട ഉണ്ടാക്കാനാണെങ്കിലും ഇടയ്ക്ക് ഇടയ്ക്ക് വേറെ പണികൾ ഉണ്ടെങ്കിലും കുറച്ച് സമയം ഒക്കെ ഫ്രീ ആയിട്ടിരിക്കും ആ സമയത്ത് കുട്ട ഉണ്ടാക്കുക അതേപോലെ തന്നെ ഓല മെടഞ്ഞ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു നെയ്ത് എടുക്കുന്നു അതും അതേപോലെ അപ്പം നമക്ക് എന്ത് പണിയും ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടെങ്കിൽ സമയം ഒരു വിഷയമല്ല പ്രായം ഒരു വിഷയമല്ല നമുക്കതെല്ലാം നേടുവാൻ നമുക്ക് സാധിക്കും പിന്നെ ഇപ്പം പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും ഞങ്ങൾക്കങ്ങനെ ശീലമൊന്നും ആയിട്ടില്ല കുറച്ചൊക്കെ ഞങ്ങള് ചെയ്ത് വരുന്നുണ്ട് പിന്നെ കടയിൽ ഒക്കെ കൊണ്ട് കൊടുക്കണം ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി എന്ന് ആഗ്രഹങ്ങൾ ഉണ്ട് പക്ഷെ സാധിക്കുമോ ഇല്ലയോന്ന് ഞങ്ങൾക്ക് ഒട്ട് അറിയത്തില്ലല്ലോ മറ്റുള്ളവര് കാണിക്കുന്ന കണ്ട് ഞങ്ങളും പഠിച്ച് എടുക്കും എന്നാണു ഞങ്ങളുടെ പ്രതീക്ഷ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങള് കാണിക്കുന്ന കണ്ട് മറ്റുള്ളവരും പഠിച്ചെടുക്കും അവര് ചെയ്യുന്നു അങ്ങനെ കൂട്ടമായിട്ട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്